ഹലോ ഇത് പാന് കാര്ഡ് ഹെല്പ്പ് ലൈനല്ലെ എനിക്കൊരു സഹായം ആവിശ്യമായിട്ടുണ്ട് എന്റെ പാന് കാര്ഡ് നഷ്ടപ്പെട്ടു അത് ഇനി എനിക്ക് ഒരു തൊഴിൽ അഭിമുഖത്തിനായി രണ്ട് ദിവസത്തിനകം എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാന് പഠിച്ച് ഒരു തൊഴിലിനുവേണ്ടി ഞാന് വളരെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു അങ്ങനെ എനിക്ക് എന്റെ ആഗ്രഹം പ്രകാരം എനിക്ക് ഒര് ജോലിയുടെ അഭിമുഖത്തിനായി പോകേണ്ടതായി ഉള്ള സാഹചര്യമാണ് ഇപ്പോള് വന്നിട്ടുള്ളത് ഇത് ഇനി എനിക്ക് രണ്ടാമത് ഒന്നും കൂടി ഡൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാനോ അത് തിരിച്ച് വരാനുള്ള സമയം എടുക്കുന്നതിന് മുമ്പുതന്നെ എനിക്കിതെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യാനത്രെ ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് സഹായിക്കാമോ എന്റെ പാന് കാർഡ് നമ്പര് എ സി ബി അഞ്ച് ആറ് മൂന്ന് ഒമ്പത് എസ് ആണ് എന്റെ പേര് സീന എന്നാണ് താങ്കള്ക്ക് എന്നെ ഒന്ന് ഹെല്പ്പ് ചെയ്യാമോ ഹെല്പ്പ് ചെയ്തില്ല എങ്കില് എന്റെ ഭാവി തന്നെ ഒരു കഷ്ടത്തിലേക്ക് മാറും എന്തെന്നാല് എനിക്ക് ഇത് നല്ല ജോലി സാധ്യതയും നല്ല വരുമാനവും നല്ല ശമ്പളവും എല്ലാം ലഭിക്കുന്നതിന്റെ വീടിനടുത്ത് തന്നെ ഉള്ള ഒരു ഫേമാണിത് അത് കിട്ടിയാലെനിക്ക് വളരെയധികം പ്രയോജനമായിരിക്കും അതുകൊണ്ട് താങ്കള് എന്റെ ഈ ആവിശ്യം മാനിച്ച് കൊണ്ട് ഈ എനിക്ക് ഇതിന്റെ റീപ്രിന്റ് എത്രയും പെട്ടന്ന് ഒന്ന് നല്കാനായി ഞാന് അപേഷിക്കുന്നു